പുസ്തകങ്ങളല്ലാതെ വേറെ വായിക്കുന്നതായിട്ട് മാഗസിൻസ് അങ്ങനെ വായിക്കാറില്ല ഒട്ടുമേ വായിക്കാറില്ല മാഗസിൻസ് അതിലങ്ങനെ ഒരു ഇൻട്രസ്റ്റങ്ങനെ തോന്നിയിട്ടില്ല മാഗസിൻസിലോട്ട് വ്ളോഗ്സ് വായിക്കാറുണ്ട് വ്ളോഗ്സ് വായിക്കുന്നതിഷ്ടമാണ് അതു വഴി ആൾക്കാരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അപ്പ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ വായിക്കാനിഷ്ടമാണ് അല്ലാതെ ആൾക്കാരുടെ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം വ്ളോഗ്സ് വഴി ഇടാറുണ്ട് അപ്പം ആൾക്കാരെ കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വ്ളോഗ്സ് വായിക്കുമ്പോൾ പത്രം ഓഫ്കോസ് വായിക്കാറുണ്ട് ദ ഹിന്ദുവാണേറ്റവും കൂടുതൽ വായിക്കുന്ന പത്രം അതിലെനിക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെൻസ് എന്നു പറയുന്നത് സ്പോർട്സിൻ്റെ ഈ ആ പേജ് ഒന്ന് വായിക്കാറുണ്ട് അതുപോലെ എഡിറ്റോറിയൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റോറിയൽ അരിച്ചു പെറുക്കി വായിക്കാറുണ്ട് പിന്നെ അതുപോലെ ന്യൂസ് പേപ്പറിൽ വരുന്ന മാഗസീൻസ് വായിക്കാറുണ്ട് അതിൽ നിറയെ കഥകളും ആൾക്കാരുടെ റിയൽ ലൈഫ് സ്റ്റോറീസും സിനിമാ റിവ്യൂസും അങ്ങനെയൊക്കെ വരുന്നതു കൊണ്ട് എനിക്ക് അതിൽ വരുന്ന മാഗസീൻസിഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതലിഷ്ടം എഡിറ്റോറിയൽസ് വായിക്കാനാണ് അതിൽ അവ അവരുടെ ആൾക്കാരുടെ ആശയങ്ങൾ ഇങ്ങനെ പങ്കു വെക്കുന്നതും എല്ലാം വായിക്കാൻ എനിക്കിഷ്ടമാണ്